ഞങ്ങളുടെ പ്രദേശത്ത് ആർക്കേലും പാമ്പുകടിയേറ്റു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് അയാളെ അയാളുടെ ഭയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നതാണ് കാരണം കാരണം ഇപ്പോൾ അവർ പാമ്പിനെപ്പോലത്തൊരു ഭീകരജീവിയുടെ കടിയേറ്റാൽ പെട്ടന്ന് അയാളുടെ ഭയം വർദ്ധിക്കും ചെയ്യും അതുമൂലം അയാളുടെ രക്തയോട്ടം കുറയുകയും ചെയ്യും വിഷം പല സ്ഥലത്തും പെട്ടന്നു വ്യാപിക്കാൻ സാധ്യത കൂടുതലുണ്ട് മേയ് ബി ഇനി കടിയേറ്റു കഴിഞ്ഞാൽ ആദ്യം അയാളുടെ ഭയത്തെ ഇല്ലാതാക്കും അതുകഴിഞ്ഞിട്ട് ചെറിയ ഒരു തുണി തുണിയോ എന്തെങ്കിലും ഒരു കഷ്ണം എടുത്തിട്ട് അയാളുടെ എവിടെയാണോ മുറിവ് അതിൻ്റെ തൊട്ടു മുകളിലായിട്ട് കുറച്ച് മേലെയായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഓവർ വല്ലാതെ ടൈറ്റ് ആക്കാതെ ചെറിയ രീതിയിൽ അവിടൊരു കെട്ടിടും കെട്ടും കാല് കെട്ടും ടൈറ്റ് ആക്കി വല്ലാണ്ട് ടൈറ്റ് ആക്കില്ല ചെറിയ രീതിയിൽ കെട്ടിടും അപ്പോഴ്ത്തേക്കും കയറിയ പാമ്പു കടിയേറ്റ് കയറിയ വിഷം നേരെ താഴേക്ക് ഇറങ്ങി വരും എന്നിട്ട് ആ കടിച്ച സ്ഥലത്ത് ചെറുതായിട്ടൊരൂ കീറും ചെറുതായിട്ടൊന്നു കീറും പാമ്പിൻ്റെ വിഷം നേരെ പുറത്തേക്ക് വരുകയും ചെയ്യും എന്നിട്ട് കഴുകി ശുദ്ധമായ വെള്ളത്തിൽ കഴുകി കഴിഞ്ഞ് അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് പൊതുവേ ചെയ്യാറുള്ളത്